കഴിഞ്ഞ കുറച്ചു പതിറ്റാണ്ടിനിടയില് ഇന്ത്യയില് വലിയ സാമൂഹിക സാങ്കേതിക മാറ്റങ്ങള് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഫലമായിട്ട് യൂ ട്യൂബര് കണ്ടെന്റ് ക്രിയേറ്റര് ഹാസ്യ നടൻ ഗെയിമർ ഇൻഫ്ലുവൻസർ തുടങ്ങിയ പുതിയ ജോലികളും മേഖലകളും റോളുകളും ഒക്കെ വാപകമായിട്ട് ഉയർന്നുവന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ വളർച്ചയും പിന്നെ ഇൻ്റർനെറ്റ് ആക്സസിൻ്റെ വിപുലീകരണവുമാണ് ഇതിനു പിന്നിലുള്ള പ്രധാന കാരണങ്ങള് ഇന്ത്യൻ ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങുണ്ടാക്കി ഇതുവരെ പരമ്പരാഗത തൊഴിൽ മേഖലയിലേക്കു മാത്രമേ വിദ്യാർഥികൾ തങ്ങൾക്കുള്ള കരിയറുകള് കണ്ടിരുന്നുള്ളൂ ഇപ്പോഴവര്ക്കു സ്വന്തം കഴിവുകളെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ തൊഴിലുകൾ അന്വേഷിക്കാനും അതിലൂടെ സ്വതന്ത്രവും സാമ്പത്തികവുമായിട്ട് ആരെയും ആശ്രയിക്കതെ ജീവിക്കാനും അവസരം ലഭിക്കുന്നു ഉദാഹണത്തിനു സാധാരണയൊരാള് വീട്ടിലിരുന്നുതന്നെ ഒരു യൂ ട്യൂബ് ചാനല് ആരംഭിച്ച് ലക്ഷക്കണക്കിനാളുകളെ ആകർഷിക്കുകയും വരുമാനം നേടുകയും ചെയ്യുന്നു ഇതിലൂടെ തനിക്കിഷ്ടമുള്ള മേഖലയിൽ അവർ ജോലി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ആശയങ്ങളും കാഴ്ചപ്പാടുകളും സമൂഹത്തോടു പങ്കുവയ്ക്കാനും പറ്റുന്നുണ്ട് പിന്നെ ഏതായാലുമീ പുതിയ ജോലികൾക്ക് അതിന്റേതായ വശങ്ങളുണ്ട് സ്ഥിരതയുടെ കുറവു മാനസിക സമ്മർദ്ദം സാങ്കേതിക അറിവിൻ്റെ ആവശ്യകത എന്നിവ എന്നിരുന്നാലും സൃഷ്ടിപരതയോടും കൂടി പുതിയ തലമുറ ജീവിതത്തിൽ ഇതു വലിയ സാധീനമാണു ചെലുത്തുന്നത് പിന്നെ പണ്ട് വെറും ഒരു ഡോക്ടര് എൻജിനീയര് ആ ഒരു ഇതായിട്ട് ചുരുങ്ങിയിരുന്നു ഇന്നു പിന്നെ ആൾ എന്താണ് രക്ഷിതാക്കളും കുറച്ചൊക്കെ മക്കളുടെ രീതിയില് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടാൻ വേണ്ടിയിട്ട് അവരും ഇൻട്രസ്റ്റായി ക്കുന്നുണ്ട് പിന്നെ വേറെേയും കുറേ പുതിയ ജോലികള് സ്ത്രീകളൊക്കെ ഫാഷൻ ഡിസൈനിങ്ങായിട്ടും അങ്ങനെ അവരുടെ ഫാഷനിലൂടെ അങ്ങനെ വീട്ടിലിരുന്നു വരുമാനം ഉണ്ടാക്കുന്നവരങ്ങനെയുണ്ട് പിന്നെ ഒരുപാടു വ്യത്യാസങ്ങള് പലവര്ക്കും അവരുടെ ജീവിതത്തില് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അതായത് അവരുടെ സ്വപ്നങ്ങളൊക്കെ വീട് കാറതൊന്നുമൊരിക്കലും പരമ്പരാഗതമായ രീതിയില്ക്കൂടി പോയിക്കണെങ്കില് അവരെക്കൊണ്ടു സാധിച്ചിരുന്നില്ല പക്ഷേ ഇങ്ങനെയാവുമ്പോള് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജോലിയാവും അവര് വിചാരിക്കുന്നതു പോലെ അത്രയ്ക്കും സാലറിയും കാര്യങ്ങളും കിട്ടുകയും ചെയ്യും മറ്റേതു സന്തോഷം ഉണ്ടാവും നമ്മള് വീട്ടിലിരുന്നിട്ടു നമ്മള് ഒരു നയൻ ടു സിക്സ് വർക്ക് പോലെയല്ലാതെ ഒരുപാട് വീട്ടിലത്തെ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത പിന്നെ എന്താണ് നമ്മള് ഇപ്പോള് വീട്ടമ്മമാരാണെങ്കില് കുട്ടികളെല്ലാം നോക്കിയിട്ടും ഒക്കെയാണ് വർക്ക് ഫ്രം ഹോമൊന്നും ഇപ്പോള് പണ്ടുണ്ടായിരുന്നില്ലല്ലോ അങ്ങനത്തെ സാധ്യതകളുള്ളതു കാരണം അതും വലിയൊരു അനുഗ്രഹമായി മാറിയിട്ടുണ്ട് പിന്നെ എന്താണ് കുട്ടികൾക്കാണെങ്കിലും അവരെ പോക്കറ്റ് മണിക്കു വേണ്ടത് അവര് ക്രാഫ്റ്റും അങ്ങനെ ഇങ്ങനെ അതിന്റർനെറ്റിലൂടെ ഫോട്ടോ ചെയ്തിട്ടും അങ്ങനെ സെല് ചെയ്തിട്ട് അവരും ഇണ്ടാക്കുന്നുണ്ട് പല മാർഗ്ഗങ്ങള് വഴിയും ഇന്ന് ഉണ്ടാക്കാം പണ്ടത്തെപ്പോലെ ശാരീരിക അധ്വാനം ഇല്ലാത്ത പല ജോലികളും നമ്മള് ഡോക്ടർമാരേക്കാളും എൻജിനീയർമാരേക്കാളും ഒക്കെ ഒരുപാട് പൈസയുണ്ടാക്കാൻവേണ്ടി സഹായിക്കുന്നുണ്ട് അതു പണ്ടൊക്കെയതു മാത്രമായിരുന്നല്ലോ വലിയ സ്കോപ്പും വലിയ എല്ലാവരെയും ഒരു പ്രതീക്ഷയുമൊക്കെ ഇപ്പോള് ഇന്നങ്ങനെയല്ലല്ലോ